എനിക്കാണെങ്കിൽ എറണാകുളം വരെ ഒന്ന് പോവണമായിരുന്നു ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനിപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയാ അപ്പം അതെങ്ങനെയാ പോകണ്ടേ ചോദിച്ചപ്പം ഇവിടെയിറങ്ങിയപ്പം ചോദിച്ചപ്പോൾ ഇവിടുന്ന് ടൗണിലോട്ട് ബസ്സും കാര്യങ്ങളൊന്നും ഇപ്പം അവൈലബിളല്ല അപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റും ഇപ്പം ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ കാക്കനാടാ പറഞ്ഞേക്കുന്നത് അപ്പം അവിടെ അങ്ങോട്ടേക്ക് വല്ലോം വാഹനങ്ങൾ അവൈലബിളാണെങ്കിൽ ഒന്ന് പറയാമോ കാരണം ഒത്തിരി ഹെൽപ്പ് ഫുള്ളായിരുന്നു ഊബറ് നോക്കിയായിരുന്നു ഊബർ നോക്കിയപ്പം അതിലാ ടൈമിൽ അവൈലബിൾ അല്ല ഞങ്ങൾക്ക് ഒരു എയിറ്റ് ഓ ക്ലോക്കിന് എങ്കിലും ഇവിടുന്ന് ഇറങ്ങണം അപ്പം ആ ടൈമിൽ ഊബറ് അവൈലബിളല്ലെന്നാ ലൊക്കേഷനിൽ കാണുന്നത് അപ്പം ഈ ഒരു ജംങ്ഷനിൽ അത് അവൈലബിളല്ല ഈ ഒരു ലൊക്കാലിറ്റീല് അവൈലബിളല്ല പക്ഷെ ടൈം കഴിഞ്ഞിട്ട് വൺ നോട്ട് ടു അവർ ലേറ്റായിട്ടാണ് അവർ നമ്മുടെ ലൊക്കേഷനിൽ സറൗണ്ടിലത് ഊബറ് അവൈലബിളാകുവൊള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇൻറ്റർവ്യൂവിന് അവിടെ ചെല്ലണം ഏകദേശം ആ ഒരു ടൈമിൽ അവൈലബിളാകുന്നപോലെ എന്തേലും ഒരു സാഹചര്യമോ വെഹിക്കിൾസോ ഉണ്ടെങ്കിൽ ഒന്നറിയിക്കാമോ കാരണം അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം ഉണ്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് പക്ഷേയെങ്കിൽ ടൈം ഡിലെ ആയിട്ടാ കാണിക്കുന്നത് അപ്പം ഞങ്ങൾക്കാ ടൈമിനു മുമ്പേ എത്താൻ വേണ്ടി ഏകദേശം ആ ഒരു ടൈം നിൽക്കുന്നൊരു ഊബറിൽ അല്ലെങ്കിൽ വെഹിക്കിൾസോ കാറുകളൊക്കെ എന്ത് തന്നെ ആണേലും ഒന്ന് അന്വേഷിച്ചറിയാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ഉപകാരമായിരുന്നു